പന്ത്രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി ഏഴ് പത്ത് എട്ട് രണ്ടായിരത്തി പതിമൂന്ന് എട്ട് ആറ് രണ്ടായിരത്തി പതിനഞ്ച് നാല് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച്